പതിനാറ് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പതിനാറ് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴ് ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തി രണ്ട് നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ്